ഞാൻ ചെറുതിലേ തൊട്ടെ ഡാൻസ് കളിക്കാനായിട്ട് ഇഷ്ടമായിരുന്നു അങ്ങനെ ഞാൻ ഡാൻസിലേക്ക് തന്നെ ചെറുപ്പം തൊട്ടേ ഡാൻസ് കളിക്കുവാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടുതന്നെ വെറുതെ ഇഷ്ടം തോന്നിയപ്പോൾത്തൊട്ട് വെറുതെ പോയെന്നെ ഉള്ളൂ അങ്ങനെ ഡാൻസ് പഠിക്കാനായിട്ട് പോയി അങ്ങനെ ഡാൻസ് പഠിച്ചു അപ്പം തന്നേ ആദ്യമേ തന്നെ ഒരിടത്തുകൊണ്ടുവന്ന് പഠിപ്പിക്കുന്നവരുടെ ഇടത്തുകൊണ്ടുവന്ന് ജെസ്റ്റ് ചേർത്തു എന്നിട്ട് അത് ഞാൻ അങ്ങനെ പഠിച്ചു പിന്നെ സ്കൂളിൽ പരിപാടിയൊക്കെ കയറുമ്പം നമുക്കത് നമുക്ക് അതല്ലേ ഉള്ളു പറ്റുന്നുള്ളൂ സ്കൂളിലെ പ്രോഗ്രാമിനൊക്കെ ചേരുമ്പോൾ നമ്മൾ അതുചെയ്യും പിന്നെ അങ്ങനെ തന്നെ സ്കൂൾ കലോത്സവത്തിനൊക്കെ ചെല്ലുമ്പം നമുക്ക് ഡാൻസ് ടീമിനും പിന്നെ പള്ളിയിലെ പ്രോഗ്രാമിനൊക്കെ വരുമ്പോൾ നമ്മൾ ഡാൻസ് കളിക്കും ആ അങ്ങ് അത്രയൊക്കെ നമുക്കുള്ളു പിന്നെ അത് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനങ്ങനെ പോയി അതൊരു തുടർച്ചയായിട്ട് കൊണ്ടുവന്നൊന്നുമില്ല അന്ന് ഇഷ്ടമായതുകൊണ്ട് ആ ഒരു ചെറുപ്പകാലത്ത് ഡാൻസ് പഠിക്കാൻ വെറുതെ പോയി എന്നു മാത്രമേയുള്ളൂ അങ്ങനെ പഠിച്ചു അങ്ങനെ പ്രോഗ്രാമിനൊക്കെ പോകുകയും എടുക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്തതേയുള്ളൂ അല്ലാതെ തുടർച്ചയായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുമില്ല അതിനോട് താല്പര്യം പിന്നെ കാണിച്ചും ഇല്ല പിന്നേ അതിപ്പം ആ ഒരു നല്ല ഇതായിരുന്നു കാരണം വച്ചാൽ ഒരുപാട് ഇഷ്ടമായിരുന്നു ഡാൻസ് കളിക്കാനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പിന്നെ ഇപ്പോൾ നമ്മുടെ ഞങ്ങൾക്ക് തന്നെ ഇപ്പം ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഡാൻസ് വാർഡ് തരത്തിലൊക്ക പ്രോഗ്രാമൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഗ്രൂപ്പ് തലത്തിലൊക്കെ ഡാൻസ് കളിക്കും കാരണം വാർഡ് തല പ്രോഗ്രാം വരുമ്പോൾ നമ്മുടെ ഓരോരോ ഫംഗ്ഷൻസ് ഇത് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അതിയിനൊക്കെ പോകുമ്പോൾ അത് എനിക്ക് ഉപകാരമായി അതുകൊണ്ട് സത്യത്തിൽ അത് ചെറുതിലെ അങ്ങനെയൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ ഉപകാരമാണ് അങ്ങനെ കളിക്കും നമുക്ക് എത്രയെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിനാണെങ്കിലും ഒരു വലിയ സന്തോഷം തരുന്നൊരു കാര്യമാണ് നമുക്ക് കൂടുതലും ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷമാണ് അതുകൊണ്ട് നമ്മമുക്കതിനോട് താല്പര്യം കാണിച്ച ചെറുതിലെ അങ്ങനെ പോയതുകൊണ്ട് ഇഷ്ടമാണ് നമുക്കത് ഇപ്പോൾ അത് ഒരു ഇടയ്ക്കെങ്കിലും കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇഷ്ടം തോന്നുന്നുണ്ട് അതൊരു പിന്നെ അതൊരു മുന്നോട്ട് അങ്ങനെ നമ്മളെ കൊണ്ടുവരാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല കാരണമെന്ന് വച്ചാൽ ആ ഒരു സിറ്റുവേഷൻസൊന്നും അങ്ങനെ അല്ലല്ലോ നമ്മളെ ലൈഫും കൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അങ്ങത്തെ ഒരു സീറ്റുവേഷൻ ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് അതിനോട് വലിയ ഇൻ്ററസ്റ്റ് ഇപ്പോൾ ഇല്ല പിന്നെ എന്തെങ്കിലും ഒക്കെ അത്യാവശ്യം വരുമ്പം നമ്മള്ൾ കളിക്കും വച്ച് അന്ന് മാത്രമേ ഡാൻസിനെക്കുറിച്ച് പറയാനായിട്ട് ഉള്ളൂ